പാലക്കാട് ജില്ലയിൽ മെയിൻ ആയിട്ട് നേരിടുന്ന വെല്ലുവിളിയെന്താണെന്നു ചോദിച്ചെന്നാൽ ട്രാഫിക് തന്നെയാണ് പറയാൻ എന്നു പറഞ്ഞാൽ വൈകുന്നേരം വർക്കിംഗ് ഹവേർസ് ഒക്കേ കഴിഞ്ഞിട്ട് വരുമ്പോൾ നല്ല ട്രാഫിക്കുകളുണ്ടാകും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ബുദ്ധിമുട്ട് സിഗ്നൽസിൻ്റെ ബുദ്ധിമുട്ട് പിന്നേ ഹോസ്പിറ്റലിലുകളാണെങ്കിലും ടൗൺ ഏരിയയിലൊക്കേ ആയിരിക്കും ഹോസ്പിറ്റലുകളുണ്ടാവുക ഉള്ളേരിയയിലുള്ളവർക്കു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയൊക്കേ കുറേ പ്രശ്നങ്ങൾ പിന്നെ അതുപോലെ തന്നേ നെല്ല് സംഭരിച്ചുവെന്ന് പറഞ്ഞാൽ അത് എത്തിച്ചാലും അവർക്കു പൈസ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് അതൊക്കെയാണ് മെയിനായിട്ടു നേരിടുന്ന വെല്ലുവിളികൾ